ഞാൻ ഏറ്റവും കൂടുതൽ ടിവിയിൽ കാണാറുള്ളത് മലയാളം പരിപാടികൾ ആണ് അതില് കുറേ സീരിയലുകൾ ഉണ്ട് പിന്നെ ബഡായി ബംഗ്ലാവ് കോമഡി ഷോസ് തട്ടിയും മുട്ടിയും ഒരു ചിരി ഇരു ചിരി ബംബർ ചിരി അങ്ങനെ ഒരുപാട് നീണ്ടുപോകും ആ ലിസ്റ്റ് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു ചിരി ഇരു ചിരി ബംബർ ചിരിയാണ് കാരണം അത് വളരേ ഒരു എൻഗേജിങ്ങ് ആയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ എപ്പോഴും ഭക്ഷണം കഴിക്കാറ് ആകുമ്പോഴാണ് ആ പരിപാടി തുടങ്ങാറ് അപ്പോൾ ഞാൻ അമ്മ അച്ഛൻ അനിയത്തി എല്ലാവരും കൂടെ ഇരുന്നാ കാണുക ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ മറന്നിരുന്നു കാണാൻ പറ്റിയ പരിപാടിയാണ് മഴവിൽ മനോരമയിൽ ഉള്ള ഒരു ചിരി ഇരു ചിരി ബംബർ ചിരി അതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടിവി പ്രോഗ്രാം